ഹലോ ആ ഇതാരാണ് ആ ആ ആ എന്നാ ഉണ്ട് വിശേഷങ്ങൾ ആ കാര്യങ്ങളൊക്കെ വലിയ മെച്ചൊന്നുമല്ല എങ്കിലും കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട് കച്ചവടമൊക്കെ പൊതുവേ കുറവാണ് പിന്നെ ആ ആ പിന്നെ അവിടെ ആ എത്ര സെൻറ്റാ ഉദ്ദേശിക്കുന്നത് വീടിനാണോ അതോ അതെ വീട് വെക്കാനാണോ അതോ നമ്മൾ വെച്ച് വാടകക്ക് കൊടുക്കാനോ അങ്ങനെ

റെൻറ്റിനു കൊടുക്കാൻ ആ ആ ഉവ്വുവ്വ് ആ ആ ആ ആ ജസ്റ്റ് നോക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ കറക്റ്റ് ടൗൺ ടൗണിനടുത്ത് ഒരു ഒന്ന് രണ്ട് വീട് കിടപ്പുണ്ട് അന്നേരം അങ്ങോട്ട് മെയിൻ റോഡിലൊന്നും അല്ല മെയിൻ റോഡിനു ചേർന്നുള്ളതിനൊക്കെ സാമാന്യം നല്ല വില വരുന്നതാണ് കിടക്കുന്നത് ഇനി അല്ലെങ്കിൽ അല്ലെങ്കിൽ പുല്ലുകണ്ടം ഭാഗത്തേക്ക് മാറിയിട്ടാണെങ്കിൽ അവിടെ ആ അവിടെയൊക്കെ എന്നു പറഞ്ഞാൽ സെൻറ്റിനൊരു എൺപത് എൺപത്തി അഞ്ചൊക്കെ ഏ അപ്പോൾ ആ റേറ്റിൽ കിട്ടും വെള്ളം വെള്ളമുണ്ട് പക്ഷേ ആ കരൻറ്റെടുക്കാനുള്ള സൗകര്യം ഒരു പോസ്റ്റ് ഇടേണ്ടി വരുമായിരിക്കും കറൻറ്റിന് ആ വെള്ളം നമുക്ക് അവിടുന്ന് കുഴിച്ചെടുക്കാവുന്നതേ ഉള്ളു വെള്ളത്തിന് അല്ലെങ്കിൽ കുഴൽ കിണറടിക്കാനുള്ള സംവിധാനം ചെയ്യാം ഇപ്പോൾ പാടത്ത് പോലും കുഴൽ കിണറാണ് നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്ക് കൂടുതലൊന്നും നോക്കുന്നില്ല നമുക്ക് കൃഷി സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ധാരാളം കൊടുക്കാനുണ്ട് നല്ല രീതിക്കുള്ള കൃഷി രീതി ആയാലൊക്കെ ഏക്കറു കണക്കിന് കൃഷി സ്ഥലങ്ങൾ തോട്ടം റബറു തോട്ടം ഒക്കെ കിടപ്പുണ്ട് അതിനു പാർട്ടിക്കാരുണ്ടെങ്കിൽ പറഞ്ഞാ മതി ഏ ഉണ്ട് ആ അതെ ആ ആ ആ അത് എല്ലാ സൗകര്യങ്ങളും നല്ല വെള്ളവും കറൻറ്റും ചെറിയ വീടും ഭൂമിയും എല്ലാം ഉള്ള കൃഷി ഭൂമിയും ഉണ്ട് ഒരുവിധം നല്ല ആളുണ്ടെങ്കിൽ അത് എട്ടും എട്ടും പത്തും സെൻറ്റ് കിട്ടിയാൽ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല ഒരു ഒരു അൽപ്പം കൂടി സ്ഥലമാണെങ്കിൽ ആ ആ ഈ ആ

അപ്പോൾ ആ ആ ഊവ്വുവ്വ് ആ

അല്ല ഓ അങ്ങനൊരു വിഷയമുണ്ട് ആ ആ ആ ആ നമുക്ക് കണ്ടീഷന് കുഴപ്പം വരികേലല്ലോ ആ കുഴപ്പമില്ല അത് കൊള്ളാം ആ ആ അതൊരു പ്രശ്നമില്ല ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമോന്ന് നോക്കാം ഞാൻ ഒരു രണ്ട് എണ്ണം കൊണ്ട് കാണിക്കാം അപ്പോൾ ഒരെണ്ണത്തേക്ക് ഇറങ്ങാൻ പറ്റുമോന്ന് നോക്കു ആദ്യം ഏ അപ്പോൾ നമുക്ക് ഒരു ദിവസം രണ്ട് പേരെ കൂടെ കൂട്ടി അത് നമുക്ക് അന്വേക്ഷിക്കാം അത് അപ്പോൾ ഇറങ്ങാൻ പറ്റുന്നതെന്ന് വിളിച്ചൊന്ന് വിളിച്ചിട്ട് ഇറങ്ങണെ കാരണം പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് ആ അത് ആ ആ ആ

ആ ആ ഉവ്വുവ്വ്

അത് വെള്ളം ഉള്ളതൊക്കെ വെള്ളം വെള്ളം ഉള്ളതൊക്കെ കിണറ് ഉള്ളത് കിടപ്പുണ്ട് അന്നേരം കെട്ടിടം ഉള്ളതോ ചെറിയ പഴയ ഒരു വീടൊക്കെയുണ്ട് ആ അതൊരു പത്ത് മുപ്പത്തി അഞ്ച് സെൻറ്റ് വരുമായിരിക്കും അവർ വന്ന് നോക്കാൻ അവർ പറഞ്ഞിരുന്നു ഞാൻ പോയി കണ്ടില്ല മുപ്പത്തി അഞ്ച് സെൻറ്റ് നാൽപ്പത് സെൻറ്റ് വരുന്ന വിധത്തിലാണ് അവർ പറയുന്ന റേറ്റ് അത് റേറ്റെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്തി അഞ്ച് സെൻറ്റാണെങ്കിൽ ഒരു ശരാശരി മൂന്ന് രൂപ നാല് രൂപ അടുത്ത് വരും അങ്ങനെ ആ മൂന്ന് രൂപ നാല് രൂപ അങ്ങനുള്ള അ ആ ആ ആ ആ ആ ഒരു അൽപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ഫിക്സഡ് വില അല്ല ഏ കച്ചവടമാണല്ലോ ഒരൽപം കൂടി കുറഞ്ഞൊക്കെ വരാം ഏ പിന്നെ അവർ വലിയ വിൽക്കേണ്ട വലിയ അത്യാവശ്യമുള്ള കക്ഷികളല്ല അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ ഒത്തിരി താഴാൻ സാധ്യതയില്ല അപ്പം അങ്ങനൊരു പ്രശ്നം കൂടി അതിനകത്തുണ്ട് ഏ ഒന്നും കൂടി നോക്കാം അപ്പോൾ കാണാൻ വേറെ വീട്ടീന്നാരേലും ഒക്കെയുണ്ടോ അവരേം കൂടെ കൂട്ടി ഒരുമിച്ച് ഇറങ്ങിക്കോ എങ്കിൽ പിന്നെ നമുക്ക് ഒറ്റടിക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടങ്ങനെ കണ്ടങ്ങു പോകാം ആ ഒരു ഒരു മൂന്ന് നാല് പ്ലോട്ട് നമുക്ക് കാണാവുന്ന വിധത്തിൽ ഞാൻ അതറേൻജ് ചെയ്യാൻ കൂടെ ഒരു മൂന്നോ നാലോ ഏ പ്ലോട്ട് കണ്ട് നമുക്ക് ഇഷ്ടപ്പെടണത് ഏതാണെന്ന് വെച്ചാലത് ചെയ്യാം അപ്പോൾ ആ ബിൻസിക്ക് വേറെ വേറെ എന്തേലും കൂടുതലായിട്ട് വേണമെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞാൽ മതി ആ ആ ആ ആ ആ ആ അപ്പോൾ അപ്പോൾ പിന്നെ വേറെ എന്ന വിശേഷം ഇങ്ങനെ ഇത്തരം പരിപാടികളൊക്കായിട്ട് പോകണു അത്രേയുള്ളു